ഇന്ത്യയിലെ ഭക്ഷണങ്ങൾ പലവിധത്തിലാണ് ഗോതമ്പ് ഗോതമ്പ് പദാർത്ഥങ്ങളും അതേപോലെ അരി അരി കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങളും കേരളത്തിലും ഇന്ത്യയിലും ഒട്ടാകെ സുലഭമായി ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഭക്ഷണ രീതികൾ വിവിധ തരത്തില് ഉള്ളതാണ് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അരിയാഹാരങ്ങളാണ് അതേ സമയം മറ്റു സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ ജീവിത രീതിയിൽ ഗോതമ്പ് ഭക്ഷ്ണം ഗോതമ്പ് ഭക്ഷ്ണത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രിയൻറ്റൊരു ഇൻഗ്രീഡിയൻ്റാണ്